ഇപ്പോൾ നമുക്ക് അങ്ങനെ മലകയറ്റത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് പോയതിൽവെച്ച് ഏറ്റവും നല്ല ഹില്ലെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അ ഒന്നാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് കോഴിക്കോട് അങ്ങനെ ഒരു മലകളും കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഉള്ളതില് നമ്മള് എങ്ങനെ അഡ്വെൻജറായിട്ട് ടൈപ്പ് അങ്ങനെ മല ഒക്കെ കയറാൻ പോയിട്ടുള്ളത് വയനാട് ജില്ലയിയിലും ഇടുക്കിലൊക്കെയാണ് അപ്പോൾ വയനാട്ടിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ വയനാടാണല്ലോ കോഴിക്കോടിൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത് അപ്പോൾ നമ്മള് നോക്കുമ്പോൾ വയനാട് ജില്ലയിലെ കയറാൻ പറ്റിയ മല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെമ്പ്ര പീക്ക് മേപ്പാടിയുള്ള ചെമ്പ്ര പീക്കുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഏതാ കുറുമ്പാല കോട്ട ഇതുരണ്ടുമാണ് ഞാന് അതായിട്ട് പോയിട്ടുള്ളത് കൂടുതലും പോയിരിക്കുന്നത് സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമ്മള് ആദ്യം കയറുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുകയില്ല പിന്നെ നമ്മൾ അവിടെ മുകളിൽ എത്തി കഴിയുമ്പോൾ ഉള്ള വ്യൂ വും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളി അവിടുത്തെ ഒരു എന്തപറയുവാ അവിടുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ അത് തന്നെ അത് തന്നെയാണ് അപ്പോൾ നമ്മള് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ ചെമ്പ്ര പീക്കിൻ്റെ മുകളിലുള്ള കുളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കുളമാണ് പിന്നെ കുറുമ്പാലക്കോട്ടെല് കയറുകയാണെങ്കിൽ അവിടത്തെ വ്യൂ തന്നെയാണ് മെയിൻ കാരണം അതിൻ്റെ ഒരു ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള മേഘങ്ങളൊക്കെ താഴെ ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ എന്തുകൊണ്ടും നല്ലൊരു കാഴ്ചെ തന്നെയാണ് അതൊക്കെയാണ് എനിക്ക് അവിടുന്ന് കിട്ടിയൊരു ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത്